നവജാതശിശുക്കൾക്ക് വൃത്തിയുള്ള അന്തരീക്ഷം നൽകണെങ്കില് ആ മെയിനായിട്ട് വേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ എപ്പഴും വൃത്തിയായിട്ട് കുളിപ്പിച്ച് എപ്പഴും നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിപ്പിക്കുക പിന്നീട് ആ വീട് ഏറ്റവും വൃത്തിയുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തണം കാരണം ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് തന്നെ കുട്ടി ജീവിക്കുന്ന ആ അന്തരീക്ഷമാണ് അപ്പൊൾ ആ വീടും പരിസരവും ഏറ്റവും വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് പിന്നീടൊന്നു ചെയ്യാൻ കഴിയുന്നത് പിന്നെ കുട്ടിയുടെ നഖമാണെങ്കിലും മുടിയാണെങ്കിലും എല്ലാം നല്ല വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വയ്ക്കണം പിന്നെ അസുഖം വരാതിരിക്കാൻ വേണ്ടി ചെയ്യണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഭക്ഷണമാണ് കുട്ടി ഇപ്പൊൾ മുലപ്പാലാണ് കുടിക്കുന്നതെങ്കില് അമ്മയും അതുപോലെത്തന്നെ നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ ഉണ്ടെങ്കിലേ കുട്ടികൾക്കും അതേ ആരോഗ്യം ലഭിക്കുകയുള്ളു അപ്പൊൾ കുട്ടി വൃത്തിയായിട്ട് നിക്കണമെങ്കില് അമ്മയും അതേ അളവില് വൃത്തിയോടെ പെരുമാറണം കുട്ടി അതുപോലെത്തന്നെ നമ്മള് ശിശുവിനെ എടുക്കുമ്പഴും എപ്പഴും കൈകൾ വൃത്തിയായി സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഏതൊരു കുട്ടീനേയും ഏതൊരു കുട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇത്രയും പ്രായം ചെറുതായ കുട്ടികളെ നമ്മളെപ്പഴും കൈകൾ വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ കുട്ടികളെ എടുക്കാൻ വേണ്ടി എടുക്കാൻ പാടുകയുള്ളു അതേറ്റവും ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യാണ്